നമ്മുടെ സംസ്ഥാനത്ത് എന്ന് വച്ചാൽ കേരളത്തിൽ കൂടുതൽ കാണുന്നത് നമ്മുടെ ബക്രീദ് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ആയിക്കോട്ടെ ചെറിയ പെരുന്നാള് വലിയ പെരുന്നാള് എന്നിങ്ങനെ രണ്ട് പെരുന്നാളുകളുണ്ട് അതുണ്ട് പിന്നെ ദീപാവലി ഓണം ക്രിസ്തുമസ്സ് അതുപോലെ ഈസ്റ്റർ ഇതൊക്കെ ചില ആഘോഷങ്ങളാണല്ലോ അതുപോലെ പിന്നെ ഈ മ് ഓണമൊക്കെ വരുമ്പോൾ നല്ല രസമല്ലേ ഓണങ്ങളൊക്കെ പിന്നെ ഓണമൊക്കെ വരുമ്പോൾ സ്കൂളിലാണെങ്കിൽ അത്തപൂക്കളം ഒക്കെ ഇടും സ്കൂൾ കുട്ടികൾക്ക് പൂക്കൾ പറിക്കാൻ പോകും സ്കൂളിൽ അത്തപൂക്കളം ഇടാൻ അതുപോലെ ദീപാവലിക്ക് ആയിക്കോട്ടെ സ്വീറ്റ്സ് പടക്കം പൊട്ടിക്കൽ വീടിന്റെ അടുത്തുള്ള എല്ലാവരും പടക്കം പൊട്ടിക്കും ഇപ്പോൾ ഒരാൾക്ക് മാത്രമല്ല ഈ ആഘോഷങ്ങളൊക്കെ ഏഹ് ആദ്യമൊക്കെ പിന്നെ ക്രിസ്ത്യൻസിന് ഈസ്റ്റർ അതുപോലെ ക്രിസ്തുമസ്സ് മുസ്ലിംസിന് ബക്രീദ് ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ അതുപോലെ ദീപാവലി ഹിന്ദൂസിന് ഒക്കെ ദീപാവലി അതൊക്കെ അതൊക്കെ വരുന്നുണ്ടല്ലോ പക്ഷേ ഇപ്പോൾ ഈ ഒരു സമൂഹത്തിലെ എല്ലാ ആഘോഷവും എല്ലാവർക്കും ഉള്ളതാണ് ക്രിസ്റ്റ്യൻസ് മുസ്ലിംസ് അല്ലെങ്കിൽ മതപരമായിട്ടോ അല്ല മതപരമായിട്ട് അല്ല ഇപ്പോൾ എല്ലാവരും ആഘോഷിക്കുന്നത് ഇപ്പോൾ ദിപാവലി ആയിക്കോട്ടെ എല്ലാ മതക്കാരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നാണ് ദിപാവലി ഓണം അതൊക്കെ അതുപോലെ തന്നെ ക്രിസ്തുമസ്സ് ആയിക്കോട്ടെ ഇപ്പോഴും എല്ലാ വീട്ടിലും പിന്നെ കെയ്ക്ക് ഇപ്പോൾ കെയ്ക്കുണ്ടാകുന്നത് കൂടുതലായിട്ട് ഇപ്പോൾ എല്ലാ വീട്ടിലും കെയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ ആദ്യമൊക്കെ നമ്മള് കടകളിലായിരുന്നു ഇപ്പോൾ എല്ലാ എല്ലാ ഏഹ് വീടുകളിലും ഇപ്പോൾ കെയ്ക്ക് അത്യാവശ്യം കെയ്ക്ക് ഉണ്ടാക്കാനറിയാം കെയ്ക്ക് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഫോൺ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പഠിച്ചല്ലോ എല്ലാവരും അതുകൊണ്ട് ആഘോഷങ്ങളായിക്കോട്ടെ ഇപ്പം പെരുന്നാൾക്ക് ആയിക്കോട്ടെ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അയൽവാസികൾക്കാണെങ്കിലും കൊടുക്കുകയും അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് ഈ അ ആ ഈ ആഘോഷങ്ങള് അതുപോലെ മതപരമായിട്ടാണെങ്കിലും ഇത് എല്ലാ മതക്കാരും ഇപ്പോൾ എല്ലാ ആഘോഷിച്ച് വരുകയാണ്